ബുദ്ധിമുട്ടുണ്ടോ ആയിരുന്നോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെല്യ ബുദ്ധിമുട്ടല്ല എങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം കുറേ സംശയങ്ങളും കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം കേരളത്തിൽ മലയാളമാണ് മാതൃഭാഷ എന്ന് പറഞ്ഞാലും ആ മലയാളം ആ മലയാളം ഉപയോഗിക്കുന്ന ഓരോ ജില്ലകളിലും ഉപയോഗിക്കുന്ന ആ രീതിക്ക് വ്യത്യാസമുണ്ട് ഓരോ ജില്ലകളിലും ഓരോ സ്ലാംഗുകളായിരിക്കും നമുക്ക് മെയ്ബി അത് ഓരോ ജില്ലകളിലെ ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോഴെല്ലാം അതായിട്ടുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും ഞാനിപ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പം ഹോസ്റ്റലിൽ ആയിരുന്നപ്പം അവിടെ എല്ലാം ഒരുമാതിരി എല്ലാ ജില്ലകളിലെ ആൾക്കാർ പിന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ആ കൊച്ച് എന്നോട് ചോദിച്ചു നിനക്ക് തോനെ വേണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്താണ് എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന് പിന്നെ അവളോട് ഒന്ന് കൂടെ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് പറഞ്ഞുതന്നു തോനേ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണോ എന്നാണ് ചോദിച്ചത് പക്ഷേ എൻ്റെ നാട്ടിലെന്ന് പറയുമ്പം തോനെ എന്ന് അവർ അർത്ഥമാക്കുന്നതിൻ്റെ രീതി ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പം കുറച്ചുകൂടി വേണോ കുറച്ച് അധികമായിട്ട് വേണോ എന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എൻ്റെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള വ്യത്യസ്ത രീതികൽ കാരണം നമുക്ക് ആശയ വിനിമയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം അപ്പം ഓരോ ആൾക്കാർക്കും ഓരോരോ സ്ലാംഗ് ആണ് ഇപ്പം എന്താണ് പറയുന്നത് തോനെ അതുപോലെ തന്നെ കപ്പളങ്ങ അതിന് വേറെ വേറെ സ്ഥലത്ത് കപ്പയ്ക്ക ആ അങ്ങനെ ഓരോരോ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്താണ് കിടാവേ ഇങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നൊരു കൊച്ച് എന്നെ കിടാവേ ഇങ്ങോട്ട് വന്നേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ഞാൻ ഓർത്ത് എന്താണ് ഇത് കിടാവേ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടു എന്താണ് ഇങ്ങനെ വിളിക്കുന്നത് പിന്നെ അവർ മനസ്സിലായി അവരുടെ നാട്ടിൽ അത് അങ്ങനെയാണ് എല്ലാവരെയും വിളിക്കുന്നത് എടീ കുട്ടി എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥത്തിലാണ് കിടാവേ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായി അവർ സ്നേഹത്തോടെ കൊച്ചേ അല്ലെങ്കിൽ കുട്ടി എന്ന് വിളിക്കുന്ന അർത്ഥമാണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഓരോരോ സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ അവരോട് തന്നെ ആശയവിനിമയം നടത്തി അവരോട് തന്നെ സംശയം ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ബുദ്ധിമുട്ട് നേരിട്ടത് ഇപ്പോൾ കുഴപ്പമില്ലാതെ എല്ലാവരോടും ആശയവിനിമയം നടത്താൻ പറ്റുന്നു അതൊരു മാർഗമാണ് ഇപ്പം ഇങ്ങോട്ട് ഇപ്പം ഞാനിപ്പം കോട്ടയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലം ജില്ലയിലുള്ള ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുമായിട്ട് തന്നെ അവരുടെ നിങ്ങളുടെ സംശയം തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ആശയവിനിമയത്തിനുള്ള തടസ്സം ബുദ്ധിമുട്ടും എല്ലാം നേരിട്ടത്